ഓക്കേ നിങ്ങളുടെ എന്തൊക്കെയാണ് റിക്വറ്മെൻറ്റ്സ് എന്തൊക്കെ വേണം വീട്ടിലേക്ക് എന്തൊക്കെയാണ് എങ്ങനെയാണ് സ്കൊയർ ഫീറ്റ് എത്ര സ്കൊയർ ഫീറ്റ് ആ

അപ്പോൾ എത്ര സ്കൊയർ ഫീറ്റ് ഏരിയയിലാണ് നിങ്ങൾ ചെയ്യാനുദ്ദേശിക്കുന്നത് രണ്ടായിരം സ്കൊയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണോ മുകളിലും വേണോ മുകളിലും വേണം അപ്പോൾ താഴത്തൊരു ആയിരത്തിയഞ്ഞൂറും മുകളിലൊരു ആയിരം സ്കൊയർ ഫീറ്റും പോരെ അപ്പോൾ നിങ്ങൾക്ക് തറവാടെന്ന് പറഞ്ഞാൽ നാലുകെട്ട് ടൈപ്പ് വല്ലതുമാണോ ആ ആ

ഓക്കെ

ആ ഇത്രയും സൗകര്യങ്ങളൊക്കെയും താഴത്ത് ഒരു ആയിരത്തി മൂന്നൂറ് സ്കൊയർ ഫീറ്റിലൊപ്പിക്കാം

ഓക്കെ ഓക്കെ ഓ സിറ്റ് ഔട്ട് വേണം ഓക്കെ

ആ അതെല്ലാം എല്ലാം കമ്പൈൻഡ് ആയിട്ട് ഉള്ളിൽ കൂടെ തന്നെ സ്റ്റെയർക്കേസ് മുകളിലേക്ക് വേണം പുറത്തുകൂടി വേണ്ടല്ലോ ആ ഓക്കെ ആ അത് മുകളിലോട്ട് പോകുവാൻ ഇൻസൈഡിൽ നമ്മൾ കമ്പൈൻഡായിട്ടുള്ള ഗ്രൗണ്ട് ഫ്ളോറും ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളുടെ ഇൻസൈഡ് സ്റ്റെയർകേസ് വേണം

മുകളിലപ്പോൾ എത്ര സ്കൊയർ ഫീറ്റിൽ വേണം രണ്ട് ബെഡ് റൂം വേണം

ആ ശെരി ഒരു സ്കൊയർ ഫീറ്റ്ന് ഒരയ്യായിരത്തിന് മേലെ ആവും ഇപ്പോഴത്തെ ലേബർ ചാർജും മറ്റേ എല്ലാം കൂട്ടി കണക്കാക്കുമ്പോൾ ഇതിൽ കൂടുതൽ ആകും അതിനു സൗകര്യമാണെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റൊക്കെ ആയിട്ട് വരാം നിങ്ങളെ നേരിട്ട് കാണുവാണെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് തരാം അതു നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഇതും ഒരു ഷോട്ട് ടൈം ഇതും സിക്സ് മന്ത്സാണെങ്കിൽ നമ്മൾ വർക്ക് ഏരിയ നമ്മൾ ആ ലേബറെ വച്ച് പെട്ടന്ന് തീർത്ത് തരാം

ശരി ഞാൻ വരാം ആ ശെരി വന്ന് നോക്കാം നമ്മൾക്ക് സൂപ്പർവൈസർ നമ്മളും ഒണ്ടാവും അവർ വന്ന് നോക്കുന്നതായിരിക്കും എന്തെങ്കിലും കമ്പ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ ഷോട്ട് ടൈം നിങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓ പറഞ്ഞോ